ആ പറഞ്ഞോളൂ മാഡം ആ ഓക്കെ പറഞ്ഞോളൂ മാഡം മാഡം നമുക്കിപ്പോൾ ട്രക്കിങ്ങിനായിട്ടുള്ള സ്ഥലമെന്ന് പറയുമ്പോൾ കുറുമ്പാലക്കോട്ട പിന്നെ പക്ഷിപാതാളം പിന്നെ അവിടുത്തെ പക്ഷി പാതാളത്തിലെ ഹിൽ മറ്റേ ഇതാണ് ബേർഡ് സാങ്ച്വറി അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് വരുന്നത്

അവിടെ മാഡം ഇപ്പോൾ അവൈലബിൾ ആണ് പിന്നെ എന്താന്നുവെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കുറച്ച് നാൾ മഴയൊക്കെ ആയതോണ്ട് ചെറിയൊരു ട്രക്കിങ്ങിന് ചെറിയ ഇതൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം കുഴപ്പമില്ല ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം സെറ്റായിട്ടുണ്ട് പിന്നെ വ്യൂവും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് കാരണം മേഘങ്ങളൊക്കെ നല്ല ഹിൽ ടോപ്പീന്ന് നോക്കുമ്പോൾ താഴേക്ക് വന്ന് നിൽക്കുന്ന കാണാനൊക്കെ അടിപൊളിയാണ് സൺ സെറ്റ് എല്ലാ കാര്യങ്ങളും ആവിടെ നിന്ന് നോക്കിയാൽ ബ്യൂട്ടിഫുള്ളാണ് കാണാൻ മാഡം ഫസ്റ്റ് ടൈമാണോ വരുന്നത് വയനാട്ടിലേക്ക് ആ ഓക്കെ മാഡം മാഡം ഇല്ല മാഡം കുറുമ്പാല കോട്ടക്ക് നമുക്കങ്ങനെ ട്രക്കിങ്ങിന് ചാർജൊന്നും വേണ്ടി വരുന്നില്ല ഇല്ല പക്ഷേ പക്ഷിപാതാളം പോലുള്ള സ്ഥലത്തേക്കൊക്കെ പോവാൻ ഇവിടെയൊന്നും നമുക്ക് എന്താ പറയാ ട്രക്കിങ്ങിന് ഫണ്ടിൻ്റെ ആവശ്യമില്ല പക്ഷേ ഈ പക്ഷി പാതാളം പോണെങ്കിൽ നമുക്ക് ഫോറെസ്റ്റുകാരുടെ ഇത് വേണം ഫോറസ്റ്റുകാരുണ്ടെങ്കിലെ നമുക്ക് പോവാനുള്ള ഒരു ഇത് ഉള്ളൂ അല്ലാണ്ട് നമ്മളെ ആ കയറ്റിവിടില്ല മാഡം നമ്മളെ അങ്ങോട്ട് അപ്പോൾ അതിന് നമുക്ക് ചെറിയ പാസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതിന് ചെറിയ ഫണ്ട് കൊടുക്കേണ്ടിവരും

ആ അവിടെ നമുക്ക് കറക്റ്റ് അറിയത്തില്ല അവർ സിക്സ് ഹൺഡ്രഡക്കെ ആണെന്ന് തോന്നുന്നു ചാർജ് ചെയ്യുന്നത് നമ്മൾ പക്ഷി പാതാളത്തിലേക്ക് ആൾക്കാർ കുറെ ആയിട്ട് പോക്കില്ലായിരുന്നു അപ്പോൾ നമുക്ക് ചാർജക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു മാഡത്തിന് അർജൻറ്റാണെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്തിട്ട് നോക്കീട്ട് വിളിക്കാം

ഓക്കെ മാഡം ഞാനെന്തായാലും ചോദിച്ചിട്ട് മാഡത്തിനോട് കോൺടാക്ട് ചെയ്ത് പറഞ്ഞോളാം മാഡം എന്നതേക്കാണെത്തുന്നത് ഓക്കെ ഓക്കെ എന്തായാലും ഞാൻ അതിനുള്ളിൽ മാഡത്തിനോട് കോൺടാക്ട് ചെയ്ത് ഞാനിന്ന് ഉറപ്പ് വരുത്തീട്ട് മാഡത്തിനെ നോക്കീട്ട് വിളിച്ചു പറയാം ഓക്കെ മാഡം മാഡത്തിനു എന്തെങ്കിലും ടാക്സി കാര്യങ്ങളെന്തെങ്കിലും അറേഞ്ച് ചെയ്ത് തരേണ്ടതായിട്ടുണ്ടോ ആ ഓക്കെ എന്തായാലും ഞാൻ നോക്കീട്ട് വിളിക്കാം